നമ്മുടെ നാട്ടില് വര്ക്കല ബീച്ചാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കാരണം അതൊരു ക്ലിഫ് വര്ക്കല ക്ലിഫെന്ന് തന്നെ അറിയപ്പെടുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞാല് നല്ല കടലും ബോട്ടിങ്ങൊക്കെ ഉള്ളത് സ്ഥലമാണ് ബോട്ടിങ്ങ് പിന്നെ കുതിര കുതിരകൾ ഉണ്ട് അപ്പോൾ കുതിരകളെ അങ്ങനെ വിനോദ സഞ്ചാരികളൊക്കെ ഉണ്ട് നിറയുന്നൊരു സ്ഥലം തന്നെയാണ് വര്ക്കലയുടെ ക്ലിഫ് എന്ന് പറയുമ്പം അപ്പം പൊതുവേ പറയാമെന്ന് വച്ചാല് നല്ല ലോ സഞ്ചാരി സഞ്ചാരികള് വരുന്ന ഒരു മഴ പല പല വേള്ഡിൽ നിന്ന് പല പല രാജ്യത്ത് നിന്ന് വരുന്ന ആള്ക്കാരുണ്ട് അവിടെ നീന്താന് പറ്റും സര്ഫിങ്ങൊക്കെ പറ്റും അതൊരു കടലാണ് വർക്കല ക്ലിഫ് എന്ന് പറയുമ്പോൾ ഒരു ബീച്ചാണ് അപ്പം ബീച്ചിനകത്ത് പറ്റുന്ന എല്ലാം ബോട്ടിങ്ങ് ഉണ്ട് സ്പീഡ് ബോട്ടിങ്ങ് ഉണ്ട് സൂപ്പര് ബോട്ടിങ്ങ് അങ്ങനെ പറയും പിന്നെ പാരഷൂട്ട് പറക്കാന് പറ്റുന്ന പാരഷൂട്ടിങ്ങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അത്കൊണ്ട് വര്ക്കല ക്ലിഫ് തന്നെയാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള നല്ല ഒരു വിനോദസഞ്ചാരികള് വരുന്ന ഒരു സ്ഥലമായി ഞാന് കണ്ടു വരുന്നത് വര്ക്കല ക്ലിഫിനെ കുറിച്ച് പറയാനാണെങ്കില് നല്ല മലകളും നല്ല ഇരിക്കാന് പറ്റിയ ഒരു സ്ഥലമാണ് വര്ക്കല ക്ലിഫ് വിനോദസഞ്ചാരികള്ക്ക് ഏറ്റവും കൂട്തൽ ഇഷ്ടപ്പെടുന്ന സ്ഥലവും വര്ക്കല ക്ലിഫ് ആണ്